ഋതുക്കൾ എന്ന് പറയുമ്പോൾ തന്നെ നമ്മളുടെ മനസ്സിലേക്ക് എല്ലാം ഓടി വരുന്നത് നമ്മള് പൂവ് പൂക്കുന്നൊരു കാലം അതായത് വസന്തകാലം അതായത് നല്ല നമ്മുടെ പ്രകൃതിയും എല്ലാം പച്ചപ്പും ഹരിതാഭകരവും ഭംഗിയൊക്കെ നിറഞ്ഞ് നിക്കുന്ന ഒരു കാലാണ് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരിക നമ്മൾ ആ ഒരു കാലാവസ്ഥയെ നമ്മളേറ്റവും കൂടുതല് ആസ്വദിക്കുന്നത് ഇപ്പോൾ വേനൽ കാലം ഒക്കെ ആണെങ്കിൽ വേനൽക്കാലത്താണ് നമ്മളേറ്റവും കൂടുതൽ പപ്പടം ഒക്കെ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത് വേനൽക്കാലത്താണ് നമ്മള് അതിലെ സംഭവങ്ങളൊക്കെ ആളുകൾ ഉണ്ടാക്കും ഉണക്കാൻ വെക്കുന്നതും ഒക്കെ നമ്മൾ വേനൽക്കാലത്താണ് കൂടുതൽ ചെയ്തു വരുന്നത് അതുപോലെ തന്നെ നമുക്ക് വേനൽ അവധി നമുക്കുണ്ടാവാറുണ്ട് അതായത് മാർച്ച് ഏപ്രിൽ മെയ് ആ മാസങ്ങളിലാണ് നമ്മളുടെ വേനൽ അവധി എന്ന് പറയുന്നത് സ്വാഭാവികമായും വേനൽ അവധിക്ക് നമ്മളെല്ലാവരും നമ്മുടെ മുത്തശ്ശന്മാരുടെയും മുത്തശ്ശികളുടെ വീട്ടിലൊക്കെയാണ് നമ്മള് കൂടുതലും നമ്മുടെ സമയം ചിലവഴിക്കുക നമ്മള് നമ്മുടെ സ്കൂളുകളെല്ലാം കഴിഞ്ഞ് നമ്മൾ സ്കൂളുകൾ ഒക്കെ പൂട്ടിയതിനു ശേഷമാണ് നമ്മളവരുടെ വീട്ടിലേക്ക് വേനൽ അവധി ആഘോഷിക്കാൻ വേണ്ടി നമ്മള് പോകുന്നത് നമ്മളവിടെ പോകുന്നു അവിടെ നമുക്ക് ഒരുപാട് കുട്ടിക്കാലത്തെ ഓർമ്മകളും എല്ലാം നമുക്കുണ്ടാകും അതുപോലെതന്നെ നമ്മൾ അവിടെ അടുത്തുള്ള തോടുകളിലും കാടുകളിലും ഒക്കെ നമ്മള് പോകുന്നു കൂട്ടുകാരും ഒത്ത് കളിക്കുന്നു കാരണം നമ്മൾ പരീക്ഷകൾ എല്ലാം കഴിഞ്ഞ് സ്കൂളുകളെല്ലാം കഴിഞ്ഞ് നമ്മള് നമ്മുടെ വേനൽ അവധി അവധിക്കാലം ആഘോഷിക്കാൻ വേണ്ടിയാണ് പോയത് അതുകൊണ്ടുതന്നെ നമ്മളവിടെയുള്ള തോട്ടിലും കാട്ടിലും എല്ലാം നമ്മൾ പോകും അതുപോലെ തന്നെ നമ്മള് പൂ പറിക്കാൻ പോകും കൂട്ടുകാരുകളുമായി പൂക്കളം ഇടും പൂ പറിക്കുന്നു പഴങ്ങൾ പറിക്കുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യും പോരാത്തേന് മഞ്ഞു കാലത്താണെങ്കിൽ നമുക്കറിയാം മഞ്ഞുകാലമെന്ന് പറയുമ്പോൾ തണുപ്പുള്ളതായിരിക്കും വെയില് കുറവായിരിക്കും ചൂട് കുറവായിരിക്കും ആ സമയങ്ങളിൽ നമ്മൾ നല്ല ചൂടുള്ള ചായകൾ ചായയും അതുപോലെ തന്നെ എന്തെങ്കിലും ലഘുവായിട്ടുള്ള കടികളൊക്കെ കഴിക്കുക അതൊക്കെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് എൻ്റെ ഒരോർമ്മയിൽന്ന് പറയുമ്പോൾ ഞാന് മഞ്ഞ് നമ്മുടെ വേനൽ അവധി ഒക്കെ കൂടുതൽ ചെലവഴിക്കുന്നത് കണ്ണൂര് എൻ്റെ അമ്മമ്മേടെ വീട്ടിലാണ് അവിടെയാണ് ഞാൻ കൂടുതലായിട്ട് എൻ്റെ എല്ലാ ഒരുവിധ വേനൽ അവധികളും ചിലവഴിച്ചിട്ടുള്ളത് വളരെ മനോഹരമായ ദിവസങ്ങൾ ആയിരിക്കും അത് അവിടെ നമ്മൾ ഓരോന്ന് കാണാൻ പോവുകയും വേനലവധി ആസ്വദിക്കാൻ വേണ്ടി ഞങ്ങൾ ഒരുപാട് സ്ഥലം ബീച്ചുകളിൽ പോകുന്നു കൂടാതെ ഓരോ സ്ഥലങ്ങൾ കാണാൻ പോകുന്നു അങ്ങനെയൊക്കെ എന്നും എന്നും ആസ്വദിക്കാൻ പറ്റുന്ന കാലങ്ങളാണ് നമ്മുടെ ഋതുക്കൾ വ്യത്യസ്ത ഋതുക്കൾ അതായത് വർഷക്കാലം വേനൽക്കാലം മഴക്കാലം അങ്ങനെ